നമ്മടെ മലയാള ഭാഷാ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷ ആണല്ലോ അത് ഇപ്പം മറന്ന് കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ പുതിയ പുതിയ സിലബസുകളും അതുമൊക്കെ ആയിട്ട് ഇംഗ്ളീഷും അതും ഇതുമെല്ലാം പഠിച്ചു സ്കൂളുകളിൽ പോലും മലയാളം സംസാരിച്ചാൽ ഫൈൻ അടിക്കുന്ന കാലമാണ് ഇതിപ്പോൾ അതു പോലെ മലയാളം സംസാരിക്കണം നമ്മുടെ ഇത് മലയാളമാണ് അപ്പം നമ്മുടെ മാതൃഭാഷ പഠിക്കുന്നത് കൊണ്ട് അതിനകത്ത് ഒരു ഇതുമില്ല പക്ഷേ അത് അതിനെ മറന്നു കൊണ്ടാണ് ഇപ്പം കൂടുതലും ലും ഇങ്ക്ളീഷ് മീഡിയം കരുകൾ സ്കൂളുകളൊക്കെ ആണെങ്കിൽ കൂടിയും കുട്ടികൾ മലയാളം സംസാരിച്ചാൽ ഫൈൻ അടിക്കുന്ന ഒരു ഇതാണ് ഇപ്പം നിലവിൽ വന്നു കൊണ്ടിരിക്കുന്നത് നമ്മൾ അത് അത് മനസ്സിലാക്കിയത് കൊണ്ട് അതിനെ ഇതാക്കി കൊണ്ട് നമ്മൾ നമ്മുടെ ഭാഷ മുന്നിൽ നിർത്തിക്കൊണ്ട് എത്രയെന്ന് പറഞ്ഞാലും നമ്മുടെ മാതൃഭാഷയെ മറക്കാൻ പാടില്ലല്ലോ ഏത് വേറെ ഏത് സിലബസ്സ് പറഞ്ഞാലും നമുക്ക് അത് അത് മലയാള ഭാഷയോട് ഒരു പ്രാധാന്യമുണ്ട്